കേരളത്തില് ആചരിക്കുന്ന വ്യത്യസ്ത മതങ്ങള് എങ്ങനെയാണ് പാര പരസ്പരം സഹവര്ത്തിക്കുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലാണ് നമ്മള കേരളത്തിൽ പല രീതിയിലുള്ള മതക്കാർ ഉണ്ട് അതായത് ഹിന്ദു മതക്കാർ ക്രിസ്ത്യന് മുസ്ലീംസ് ഇനി മതം ഇല്ലാത്തവരും വേറെയുണ്ട് അതിൽ കേരളത്തിലെ ജനസംഖ്യയുടെ അമ്പത്തിനാലെ പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിലും മതം മതം ഉള്ള ആള്ക്കാരാണ് അതായത് മതത്തെ സ്വാധീനിക്കുന്നവരാണ് അതായത് ഇത് ഇതിനുവേണ്ടി പ്രവര്ത്തിക്കുന്നവരാണ് അതായത് മുസ്ലിംസ് ഏകദേശം മുസ്ലിംസും ക്രിസ്ത്യാനികളും കൂടി ചേര്ന്ന് നാല്പത്തഞ്ച് ശതമാനത്തോളം ഉണ്ടാകും ഒരു പോയന്റ് മുപ്പത്തി മൂന്ന് ശതമാനം മറ്റ് മതങ്ങളെ പിൻതുണയ്ക്കുന്നവരോ അല്ലെങ്കിൽ മതമില്ലാത്തവരോ ആയിരിക്കും അങ്ങനെ വിവിധ ചരിത്ര സ്വാധീനങ്ങള് കാരണം മതം മതബഹുസ്വരത ഇവിടെ ഉണ്ട് കേരളത്തിലുണ്ട് മുസ്ലിംങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും എല്ലാം ഒരുപാട് ആള്ക്കാരുണ്ട് ഇപ്പോൾ ഈ മതത്തിന്റെ പേരിൽ സംഘര്ഷം ഉണ്ടാക്കുന്നവരും ഉണ്ട് സഹകരിച്ച് ജീവിക്കുന്നവരും ഉണ്ട് ബഹുമാനം കൊടുക്കുന്നവരും ഉണ്ട് സഹിഷ്ണതയിള്ളവരും ഉണ്ട് പല രീതിയിലുള്ള ആള്ക്കാരുണ്ട് ഒരേ തരത്തിലുള്ള ആള്ക്കാർ മാത്രമല്ല സംഘര്ഷമുള്ള ആള്ക്കാർ ഒരുപാടുണ്ട് ഇപ്പോൾ കാരണം പല മതത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും സംഘര്ഷം ഉണ്ടാക്കുന്നവര് ഒരുപാടുണ്ട് അത് കൂടാതെ നല്ല സഹകരിച്ച് ജീവിക്കുന്നവരെയും നമുക്ക് കാണാന് പറ്റും ഇല്ല എന്ന് പറയാന് പറ്റില്ല സംഘര്ഷം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നമുക്ക് സംഘര്ഷം ഉണ്ടാക്കുന്നവർ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാന് പറ്റില്ല തറപ്പിച്ചിട്ട് സഹകരണത്തോടെ ജീവിക്കുന്നവരും ബഹുമാനത്തോടെ ജീവിക്കുന്നവരും ഒക്കെ ഈ നാ കേരളത്തിലുണ്ട് കേരളത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള മതക്കാരെ കാണുന്ന ഒര് അപൂര്വ്വമായ സംസ്ഥാനമാണ് കേരളം അത്രയും നല്ല സംസ്ഥാനം നമ്മൾ പറയുവാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള മതക്കാർ സന്തോഷത്തോടും സഹകരണത്തോടും ബഹുമാനത്തോടെയും കൂടെ ജീവിക്കുന്ന ആള്ക്കാർ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് തന്നെ നമുക്ക് പറയാം